നമ്മൾടെ പ്രദേശത്ത് നടക്കുന്ന മതപരമായ പരിപാടി പറഞ്ഞാൽ ഒരുപാടുണ്ട് മുസ്ലീംസിനാണെങ്കില് ഹൗസ് വാമിങ് ഉണ്ട് കല്യാണമുണ്ട് കല്യാണമെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് തരം കല്യാണങ്ങളൊക്കെയുണ്ട് ആദ്യമെന്ന് മുട്ടായി കൊടുക്കൽന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് അത്കഴിഞ്ഞിട്ട് പിന്നെ മുട്ടായി കൊടുക്കൽന്ന് പറഞ്ഞ പരിപാടി അതുകഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിൻ്റെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് റെഡ് മഞ്ഞ കല്യാണം ചുവന്ന കല്യാണം ഹൽദി അങ്ങനുള്ള പരിപാടികളൊക്കെയുണ്ട് പിന്നെ മതപരമായ പരിപാടി എന്ന് പറഞ്ഞാല് പിന്നെ ഓരോ ഉസ്താദ്മാരാണെങ്കിലും പണ്ഡിതൻമാരൊക്കെ വന്നിട്ട് ഇവിടെ എല്ലാവർക്കും ക്ലാസ്സെടുത്ത് തരാറുണ്ട് ഒര് ഒര് വിഷയത്തെ കുറിച്ചിട്ട് അവരിങ്ങനെ നമ്മ നമ്മള് ജനങ്ങളോട് ഇങ്ങനെ സംസാരിക്കുകയും നമ്മള് അതൊക്കെ കേട്ട് ഇരിക്കുകയും ചെയ്യും മതപരമായിട്ടുള്ള കാര്യങ്ങളക്കെയാണ് അവര് നമുക്ക് പറഞ്ഞ് തരുന്നതൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാറുണ്ട് ഏതെങ്കില് ഉസ്താദ്മാര് തങ്ങള് അങ്ങനേള്ളവരൊക്കെ വന്നിട്ട് ക്ലാസ്സെടുക്കാറുണ്ട് പ്രഭാഷണം ചെ പറ പ്രഭാഷണം ചെയ്യുന്നുണ്ട് അങ്ങനെയൊള്ളതൊക്കെയാണ് മതപരമായിട്ടുള്ള പരിപാടികള്